എൻ്റെ കയ്യിലാദ്യം ഉണ്ടായിരുന്ന ഇതാ റിയൽമി നാർസോ ട്വൻ്റി പ്ലസ് ടു കഴിയാതെ എനിക്കൊരു ഫോൺ മേടിച്ച് തരുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആയി ആണ് കൊറോണ വന്ന് അങ്ങ് അടിച്ച് പിന്നെ പിള്ളേർക്ക് ഫോണില്ലാതെ വഴി ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായത് അപ്പോഴേക്കും അപ്പോൾ നിവർത്തി കെട്ടിട്ട് പുതിയൊരു ഫോൺ മേടിച്ചങ്ങ് തന്നു അതങ്ങ് മേടിച്ചു തന്ന് അപ്പോഴാണ് നമ്മൾ ഫോണിന് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ഓരോന്നോരോന്നൊക്കെ അങ്ങ് പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് ഇങ്ങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി പിന്നൊരു നാല് വർഷത്തേക്ക് ആ ഫോൺ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലുമുള്ള ഇത് രീതിയിലുമാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചത് ഓരോ ഓരോ അബദ്ധങ്ങൾ പറ്റിയും അബദ്ധങ്ങൾ പറ്റാതെയും പല രീതിയിലും നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചു ഞാൻ രണ്ടാമത്തെ ഫോൺ എനിക്ക് കിട്ടിയത് ആൻ്റി കൊണ്ടു വന്ന് കൊണ്ടു തന്നതാണ് അത് അതും സംസങ്ങായിരുന്നു മറ്റേ റിയൽമി സാംസങ് ആയി കഴിഞ്ഞപ്പോഴേക്കും കുറേ വ്യത്യാസം വന്നു കുറേ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പുതിയ പുതിയ ഫീച്ചേഴ്സ് എൻ എഫ് സി ഇതൊക്കെ നേരത്തെ ഫോണിലും കാണും പക്ഷെ ഞാനിപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് കാരണം ആവശ്യങ്ങൾ തുടങ്ങിയല്ലേയുള്ളൂ പിന്നെ ഇതിൻ്റെ ക്യാമറ അടിപൊളി ക്യാമറയാണ് പലതും പല ക്യാമറയും പിന്നെ ക്യാമറ എങ്ങനെ ഉപയോഗിക്കാൻ പഠിച്ചെന്നും പഠിച്ചു പിന്നെ ഇപ്പോഴത്തെ ഫോൺ ഉപയോഗിക്കുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് സ്വയിപ്പ് ചെയ്യാൻ പറ്റി നമുക്ക് നാവിഗേഷൻ മാറ്റാൻ പറ്റി അങ്ങനെ അതിന് നമ്മുടെ ഫോണ്ടും ടെക്സ്റ്റും വരെ മാറ്റാൻ പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അത്ര നല്ല പല പല ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് അറിയാൻ മേലാത്ത ഒന്നും ഇരുന്നങ്ങിനെ കുത്തി തപ്പിക്കഴിഞ്ഞാൽ നമ്മൾ ഇനിയും തപ്പി തപ്പി തപ്പി പുതിയ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടു പിടിക്കും അതു പോലെ ഈ ഫോണുകളിൽ വരുന്ന എഡ്ജ് ലൈറ്റ് അതും എനിക്കറിയാൻ പാടില്ലായിരുന്നു പക്ഷെ അത് ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു എഡ്ജ് ലൈറ്റിംഗ് ഒക്കെ സെറ്റാണ് ഇപ്പോഴത്തെ പുതിയ ഫോണേലുള്ള ഫീച്ചറാണ് എഡ്ജ് ലൈറ്റിങ്ങ് നല്ല രസമുണ്ട് കാണാൻ കാരണം പാട്ടൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഡി ഡി ഡി ഡി ഡി ഡി എന്നൊക്കെ പറഞ്ഞ മാതിരി സീൻ സാധനമാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം കാണാനൊരു ഭംഗിയുണ്ട് പിന്നെ കർവ് ഡിസ്പ്ലേ അടിപൊളി ഫോണിന് നല്ല അടിപൊളി ലുക്ക് കൊടുക്കുന്ന ഈ കർവ് ഡിസ്പ്ലേ ആണ് കേട്ടോ അതിനനുസരിച്ച് സ്ലിംമും കൂടെയാണെ സെറ്റ് ഫോണാണ് കാരണം ഒരു പ്രീമിയം ലുക്കാണ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഫോൺ നമ്മളോട് വന്നു ചോദിക്കും നാലാൾ ചോദിക്കും ഇതേതാണ് ഫോൺ എങ്ങനെയാണ് ഉപയോഗി ഇതെവിടു എന്നത്തെയാണ് ഇത് കുറേ ആദ്യമായിട്ടാണല്ല കാണണമെന്നൊക്കെ മീൻസ് കാരണം അടി പൊളി ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ കർവ് ഡിസ്പ്ലേയും ഒക്കെ ഉള്ള ഫോണിന് അത് അതായത് കാരണം നമ്മുടെ ഡിസ്പ്ലേ ഇങ്ങനെ കർവായിട്ടിരിക്കുന്നതു കൊണ്ട് അതിങ്ങനെ പിന്നെ നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ പുതിയ സാധനങ്ങളാണല്ലോ ഫ്ലിപ്പ് ഫോണും ഫോൾഡബിൾ ഫോണും ഒക്കെ വരുന്നത് ഇങ്ങനെ ടാബ് ഒരു മടക്ക് തുടങ്ങി ഇതു ചെയ്യുമ്പോഴേക്കും നമുക്ക് തുറന്നങ്ങ് വെക്കാം സീ നല്ല അടിപൊളി ഫീച്ചറാണത് പിന്നെ അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള നല്ല രീതിയിലാണ് അത് നടക്കുന്നത് അടിപൊളി സാധനമാണ് കാരണം നല്ല രസമുണ്ടത് കാണാനും ചെയ്യാനും കേൾക്കാനും പക്ഷേ എല്ലായ്പ്പോഴും ചില നമ്മളിതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും കാര്യങ്ങളും ചെയ്യാതെ അത് ഉപയോഗിക്കാൻ ചെന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണി കിട്ടാനും ചാൻസ് ഉണ്ട് ഫോൺ ഒക്കെ അടിപൊളി ഇപ്പോഴത്തെയാണ് സാംസങ് എസ് നയൻ പ്ലസ് ഗ്യാലക്സി നല്ല അറിയപ്പെടുന്നൊരു സാധനം ബ്രാൻഡാണ് കേൾക്കുമ്പം ഇച്ചിരി പഴയ ബ്രാൻഡ് ആയിട്ട് തോന്നും പക്ഷേ ഈ ഫോണെന്നു പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ഇട്സ് പിന്നെ ഇപ്പോഴത്തെ ഫോണിൻ്റെ മെയിൻ ഇതെന്നു പറഞ്ഞാൽ ഫൈവ് ജി ഫോൺസ് ഇപ്പോഴത്തെ എല്ലാം ഇറങ്ങുന്നത് ഫൈവ് ജീയെന്നു പറയുമ്പോൾ അതിൽ ഇരട്ടി സ്പീഡിൽ നെറ്റ് കിട്ടും ഇനി ഫോർ ജി സിക്സ് ജി സെവൻ ജി എയിറ്റ് ജിയൊക്കെ വരുമായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ മെയിനായിട്ട് നിൽക്കുന്ന ട്രെൻഡാണ് ഫൈവ് ജി ഫൈവ് ജി ഫോൾഡബിൾ ഫോൺ